ക്രിവീ ക്രിയേറ്റീവ് സ്റ്റുഡിയോ അല്ലേ

ആ എൻ്റെ പേര് അനില ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് കണ്ടിട്ടാണ് വിളിക്കുന്നത് എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി കണ്ടക്റ്റ് ചെയ്യാനുണ്ട് എൻ്റെ മോൻ്റെ ഒന്നാമത്തെ പിറന്നാളാണ് വരുന്ന മെയ് ട്വൻറ്റീത്ത് അപ്പോൾ അത് ഞങ്ങൾ ഇൻഡോറിലാണ് പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ പാക്കേജും കാര്യങ്ങളും എങ്ങനെ ഒക്കെയാണ് എന്നറിയാനായിരുന്നു

ഓക്കെ ഇപ്പം പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെയാണ് അത് നിങ്ങൾ കൊണ്ടുവരുമോ ഓക്കെ ഞങ്ങൾ ഈ ബർത്ത്ഡേയ്ക്ക് മുമ്പ് ഒരു ചെറിയൊരു ഔട്ട്ഡോറിലൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ആൽബം കിട്ടാനും ആൽബത്തിൻ്റെ പ്രൈസ് ഒക്കെ എങ്ങനെ ആയിരിക്കും വരിക എന്തോരം ടൈം എടുക്കും ഇത് കിട്ടാനായിട്ട് ഓക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒന്നുകൂടി കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങളെ സ്റ്റുഡിയോ എവിടെയാണ് വരുന്നത് അങ്കമാലി തന്നെയാണോ ഓക്കെ ഓക്കെ ആ ഓക്കെ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ചിട്ട് നിങ്ങളെ വിളിക്കാം കേട്ടോ ഓക്കെ ശരി എന്നാൽ താങ്ക് യു ഓക്കെ